നമ്മുടെ ഈ ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം എന്നു പറയുന്നത് ഒരുപാട് ഒരുപാട് സ്വാധീനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിത പാഠങ്ങൾ അഥവാ പൊതുവിജ്ഞാനം അത് ചിന്തകൾ ആശയങ്ങൾ ഒക്കെ വർധിപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം ജീവിതത്തിൽ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മൂല്യാധിഷ്ടിതമായിട്ടുള്ള ചിന്തകളും പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനങ്ങളും പൊതുവിജ്ഞാനങ്ങളും ഒക്കെ ചിന്താ ശേഷിയും ഭാരതത്തെക്കുറിച്ചുള്ള അറിവുകൾ അതിൻ്റെ ചരിത്രം അതിൻ്റെ ഭൂമി ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ അതുപോലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവുകൾ അതുപോലെതന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചുള്ള അറിവുകൾ ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇപ്പം നമുക്കറിയാം അത് വർധിപ്പിക്കുവാനായിട്ട് നമുക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം മാത്രം പോരാ അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അതിന് ഏറെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് പത്രങ്ങൾ അതുപോലെത്തന്നെ വാർത്താ മാധ്യമങ്ങൾ ടെലിവിഷൻ ചാനലുകളിലെ വാർത്തകളും ഒക്കെ ഏറെ പ്രയോജനപ്പെടും പക്ഷേ അതിനെ വർദ്ധിപ്പ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പത്രങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ഒരു മുൻവിധിയോടുകൂടി വായിക്കണം പലപ്പോഴും പത്രങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളു ണ്ട് രാഷ്ട്രീയ ചായ്വുകളുണ്ട് നിഷ്പക്ഷമായ പത്രപ്രവർത്തനം നടത്തുന്ന പത്രങ്ങളും നമ്മുടെ ഭാഷയിൽ മലയാളത്തിലുണ്ട് അപ്പം പത്രങ്ങൾ പല പത്രങ്ങൾ വായിച്ച് പലപ്പോഴും നമുക്ക് ആ വാർത്തകളുടെ അല്ലെങ്കിൽ പൊതു വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക ചിന്തകളുടെയൊക്കെയൊരു നിഷ്പക്ഷയിട്ടുള്ള ഒരു ഒരു ഒരു ഗ്രഹണം അല്ലെങ്കിലൊരു മനനം ഒക്കെ നമുക്ക് സാധിക്കണം അപ്പം അത് ചെയ്യണമെങ്കിൽ നമ്മൾ മുൻവിധിയോടുകൂടിയല്ല മറിച്ച് നമ്മൾ അത്തരം കാര്യങ്ങൾ നമുക്കേറെ സഹായിക്കാൻ സഹായിക്കുന്ന പത്രങ്ങളെ ഇങ്ങനെയുള്ള ഒരുപാട് പോരായ്മകളുണ്ട് കാരണം പത്രങ്ങങ്ങൾക്കും വാർത്താമാധ്യമങ്ങൾക്കൊക്കെ ഒത്തിരി പോരായ്മയുണ്ട് കാരണം അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ചായ്വുകളൊക്കെയുണ്ട് നിലപാടുകളുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷേ നമുക്ക് അതിൻ്റെ നിജസ്ഥിതിയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അറിവുകൾ അത് അറിയേണ്ട രീതിയിൽ അറിവിൻ്റെ പൂർണതയിൽ നമുക്ക് ഒരുപക്ഷേ ലഭിക്കാതെ പോവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്നുവെച്ചാൽ നമ്മൾ മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കാതെ മറ്റു പുസ്തകങ്ങളിലേക്ക് ഒക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് അതായത് നല്ല നല്ല ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ വായനകൾ ഒരുപക്ഷേ നമുക്ക് സത്യസന്ധമായിട്ട് വിവരങ്ങൾ ലഭിക്കുവാനായിട്ട് ഒരുപക്ഷേ പത്രമാധ്യമങ്ങളെക്കാൾ ഒരുപക്ഷേ ഈ പുസ്തകങ്ങളായിരിക്കും നമ്മളെ സഹായിക്കുക അറിവിൻ്റെ ലോകത്തേക്ക് നമ്മളെ നമ്മൾ പറയാറുണ്ട് വിജ്ഞാനമാവുന്ന സാഗരത്തിൽ ആറാടുന്ന നൗകകളാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ നമുക്ക് നല്ല സുഹൃത്തുക്കളാണ് ഈ ലൈബ്രറികളിലിരിക്കുന്ന പുസ്തകങ്ങൾ ഓരോ പുസ്തകങ്ങളും ഓരോ ഗുരുവാണ് അധ്യാപകനാണ് ഒരു പ്രൊഫസറാണ് അങ്ങനെ നോക്കുമ്പോൾ പുസ്തകങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ അതുപോലെത്തന്നെ നമ്മുടെ ഭൗതികമായ നിലവാരം പൊതുവിജ്ഞാനം അതുപോലെത്തന്നെ സാമൂഹികമായിട്ടുള്ള അറിവുകൾ ഇതൊക്കെ നമുക്ക് വർധിച്ചുവരും നമ്മളിലുള്ള ഭാവനാശേഷിയും ചിന്താശേഷിയും ഭാഷാപരമായിട്ടുള്ള നൈപുണ്യവുമൊക്കെ നമുക്ക് വർധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പത്രങ്ങളെ നമ്മൾ നൂറു ശതമാനവും ആശ്രയിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷേ നമുക്ക് അതിനകത്തുനിന്ന് ചിലപ്പോൾ പൂർണമായ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടണമെന്നില്ല എങ്കിലും നമുക്ക് ഏറെക്കുറെ നമുക്കതിനെ ലഭിക്കുകയും ചെയ്യും വാർത്താമാധ്യമങ്ങളും അതേമാതിരി തന്നെ നമ്മൾ ഓരോ ചാനലുകളും ഒരുപക്ഷേ കൃത്യമായിട്ടൊക്കെ വാർത്തകളൊക്കെ അവതരിപ്പിക്കുമെങ്കിലും അവരുടെതായ കാഴ്ചപ്പാടുകളേയും നിലപാടുകളേയും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ അത് അവതരിപ്പിക്കുക അതുപോലെത്തന്നെ ചാനൽ ചർച്ചകളെയൊക്കെ നമ്മൾ അധികം ആശ്രയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പല പലപ്പോഴും ഒരു രാഷ്ട്രീയ സംവാദങ്ങളെന്നതിലുപരി ആ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പൊതുവിജ്ഞാനം പകരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെ നമക്കതിൽന്നും പൂർണമായിട്ടും ലഭിച്ചെന്ന് വരികയില്ല അത് പലപ്പോഴും നമുക്ക് ലാഭകരമായും തീരുകയില്ല മാധ്യമങ്ങളെ നമുക്കറിയാം അവയെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം കൂടിയാണ് സത്യസന്ധമായിട്ടുള്ള പത്ര പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമുക്കറിയാം ഇപ്പോൾ അത് അതിനെന്തൊക്കെയോ മായങ്ങൾ വന്നുചേരുകയാണ് അപ്പം അത് എല്ലാ മേഖലകളിലും ഉള്ളതുപോലുള്ള ഒരു മൂല്യച്യുതി അവിടെയും നമുക്ക് സംഭവിക്കുന്നുണ്ട് ആനുകാലിക വിഷയങ്ങളൊക്കെ നമുക്കറിയാം നമ്മളത് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് പക്ഷേ പത്രങ്ങൾ അവയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും അവയുടെ രാഷ്ട്രചിന്ത അവരുടേതായ രാഷ്ട്രീയചിന്താഗതികളൊക്കെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ ചാനൽ ചർച്ചകളും അതുപോലത്തന്നെ വാർത്തകളിലൊക്കെ അവതരിപ്പിക്കുന്നത് അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഈന്ന് കേൾവിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ശ്രോതാക്കളായിട്ടുള്ള നമ്മൾ അതിൽ അതിൻ്റെ സത്യാവസ്ഥകളറിയാനായിട്ട് വീണ്ടും നമ്മൾ ചിലപ്പോൾ മറ്റു പല മേഖലകളേയും ആശ്രയിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നൂറ് ശതമാനവും അത് ലാഭകരമല്ല അപ്പം ആനുകാലിക സംഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ പത്രങ്ങൾ കൂടുതൽ മാധ്യമങ്ങൾ വായിക്കേണ്ട അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാലഘട്ടമാണിത് പലപ്പോഴും നമുക്ക് നമ്മുടെ നമ്മുടെ പത്ര ദൃശ്യമാധ്യമങ്ങളൊക്കെത്തന്നെ പത്രദൃശ്യമാധ്യമങ്ങൾ ദൃശ്യമൊക്കെ ഒക്കെ തന്നെ നമുക്കറിയാം നമ്മളെ നമ്മളെ വഴി നടത്തുന്നവരും വഴി തെറ്റിക്കുന്നവരുമുണ്ട് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ അതിന് അപ്പം ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ പ്രത്യേകിച്ച് ഡോക്ടറൽ തീസിസുകൾ അല്ലെങ്കിൽ ആധിക നല്ല റിസേർച്ച് നടത്തി നല്ല ഓ മുന്നൊരുക്കം നടത്തി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപക്ഷേ ഈ ഈ അവയിൽ നിന്നും കിട്ടുന്ന അറിവുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന അറിവുകൾ തുലോം തുച്ഛമാണ് പിന്നെ ആനുകാലിക സംഭവങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ആ ഏകദേശം ആശയങ്ങൾ നമുക്ക് ഒരുപക്ഷേ പത്രങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളേയും പത്രങ്ങളേയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം അത്രമേൽ ജനങ്ങളുടെ ഇടയിൽ അവയ്ക്ക് സ്വാധീനമുണ്ട് ആ സ്വാധീനത്തെ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഒരു ത്യാജ്യ ഗ്രാഹ്യ ബുദ്ധിയോടെ തള്ളേണ്ടത് തള്ളും കൊള്ളേണ്ടത് കൊണ്ടും ഒക്കെ വേണം നമ്മളതിനെ ഏറ്റെടുക്കുവാൻ കൊള്ളേണ്ടതിനെ എടുക്കുകയും തള്ളേണ്ടതിനെ തള്ളിക്കളയുകയും ചെയ്യണം ഒരിക്കലും നമ്മൾ അന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളിലുള്ള വിശ്വാസം നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും തീർച്ചയായിട്ടും പത്രങ്ങളും വാർത്താമാധ്യമങ്ങളൊക്കെ നമ്മുടെ നാട്ട് ആവശ്യമാണ് കാലഘട്ടത്തിന് ആവശ്യമാണ് നമ്മുടെ നാടിന് ആവശ്യമാണ് ജനങ്ങൾക്ക് ആവശ്യമാണ് അപ്പം ഇതുവഴി നമുക്ക് വലിയ വലിയ അറിവുകൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് കാലാവസ്ഥയെക്കുറിച്ച് ഒക്കെ വളരെ നല്ല അറിവുകൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ്റെ ഈ കാലഘട്ടത്തിൽ തൊഴിൽ മേഖലകളിൽ ലോകത്ത് എവിടേയുമുള്ള തൊഴിൽ സാധ്യതകൾ തൊഴിൽ സാധ്യതകൾ അപ്പം അവയുടെ അവ അവയ്ക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ് മേഖലകളിലൊക്കെ ഒരുപാട് ഒരുപാട് അറിവുകൾ കാർഷിക മേഖലകൾ പുതിയ പുത്തൻ കണ്ടെത്തലുകൾ യൂണിവേഴ്സിറ്റികളിലെ പ്രത്യേകിച്ച് കാർഷിക സർവകലാശാലയുടെയൊക്കെ പുതിയ കണ്ടെത്തലുകൾ അവയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മളിലേക്ക് എത്തുവാനായിട്ട് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് സാധിക്കുന്നുവെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്